രണ്ടു ദിവസം മുന്നേ ഞാൻ ഒരു മൊബൈൽ ഫോൺ ആണ് ഓർഡർ ചെയ്തത് അത് ഞാൻ ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ട് എന്ന ഓൺലൈൻ ഷോപ്പിംഗ് വെബ് സൈറ്റിലൂടെയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു റെഡ്മി നോട്ട് നയൻ പ്രോ മാക്സ് എന്ന കമ്പനിയുടെ ഒരു മൊബൈൽ ആണ് അതിനാൽ തന്നെ ഞാൻ അത് ഓർഡർ ചെയ്യുകയും എൻ്റെ അടുത്തേയ്ക്ക് അത് കൃത്യ സമയത്ത് തന്നെ അത് വീട്ടിലേക്ക് എത്തുകയും ചെയ്തു ഞാൻ ഓർഡർ ചെയ്ത മൊബൈൽ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം നല്ല പ്രതികരണം ആണ് തന്നത് ഞാൻ ഓർഡർ ചെയ്ത സമയത്തിന് മുന്നേ ഞാൻ അതിനെ കുറിച്ച് ഒരു വലിയ ഒരു വിചാരം ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാൽ അത് എൻ്റെ കയ്യിൽ കിട്ടുകയും ഞാൻ വളരെ അധികം സന്തുഷ്ടനായി ഞാൻ ഓർഡർ ചെയ്തത് പ്രധാനമായി അതിൻ്റെ ക്യാമറയും പിന്നെ അതിൻ്റെ പെർഫോമൻസും നോക്കിയിട്ടാണ് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എടുത്ത ഫോട്ടോ എത്രത്തോളം നമുക്ക് ക്ലിയറായി കിട്ടുമെങ്കിൽ അത്ര തന്നെ ക്ലിയർ ആയി ആ ഫോണിൽ കിട്ടും നൂറ്റി ക്ഷമിക്കണം ഇരുനൂറ്റി അമ്പത്താറ് ഇന്റേണൽ സ്റ്റോറേജും പിന്നെ എട്ട് ജി ബി റാമും നമുക്കതിൽ ലഭ്യമാകുന്നതാണ് അതുമാത്രമല്ല അതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ നാപ്പത്തെട്ട് മെഗാ പിക്സലാണ് അതിൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ റസലൂഷൻ വരുന്നത് ഇതുവരെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും അതിൽ തോന്നിയിട്ടില്ല ഞാൻ എനിക്കതിൽ കിട്ടിയത് വളരെ സന്തുഷ്ടകരമായ ഒരു പ്രതികരണമാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യാതൊരു കാരണവശാലുമുള്ള ഒരു നമുക്കൊരു വേഗത കുറവോ ബുദ്ധിമുട്ടോ അതിൽ അനുഭവപ്പെടാൻ പറ്റുന്നതല്ല വളരെ അധികം സന്തുഷ്ടനായി എന്നതാണ് എൻ്റെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാൻ അതിൽ വളരെ വളരെ സന്തുഷ്ടകര സന്തുഷ്ടനാണ്